എനിക്ക് ഏറ്റവും ഉള്ള ഭക്ഷണമാണ് ആലു പൊറോട്ട കാരണം നമുക്ക് ആലു പൊറോട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവര്ക്കും പൊറോട്ട ഇഷ്ടമാണ് കാരണം പിന്നെ ചിക്കൻ ചിക്കന് കറി കൂട്ടിയിട്ട് പൊറോട്ട തിന്നാല് ഹായ് എന്തു രുചിയാണ് അതുപോലെതന്നെ നൂഡില്സ് നൂഡില്സ് എന്നു പറയുന്നത് നമുക്ക് എത്ര വേഗം ഉണ്ടാക്കാമെന്നറിയുമോ ഒരു നുഡില്സ് മേടിച്ച് കുട്ടികള് ഉസ്കൂളിൽ പോയി വരുമ്പോഴേക്ക് അവര്ക്ക് ഏറ്റവും ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട ആഹാരവാണ് നൂഡില്സ് കാരണം പെട്ടെന്ന് ഉണ്ടാക്കി പെട്ടെന്ന് രുചിയോടുകൂടി കഴിക്കാവുന്ന ഒരു ആഹാരമാണ് നൂഡില്സ്